പാചകം ആദ്യായിട്ട് ചെയ്യുമ്പോൾ നമ്മള് ചെയ്ത് കണ്ടേക്കുന്നത് നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരൊക്കേയിട്ട് നമ്മളവരുടെടുത്തക്കെ അഭിപ്രായം ചോദിക്കും എന്നിട്ട് അതിൻറ്റേതായിട്ടുള്ള രീതീല് നമ്മള് പാചകം ചെയ്യും പിന്നെ ചിലപ്പം ഇനി ഇപ്പം അവരൊന്നും ഇല്ല നമുക്ക് അങ്ങനെ ആ സഹായിക്കാനായിട്ട് ആരുമില്ല അങ്ങനെ ചോദിക്കാൻ അങ്ങനെ ആരുമില്ല എന്നുണ്ടെങ്കി ൽ നമ്മള് ഒബ്വിയസ്ലി നമ്മള് യു ട്യൂബില് നമ്മള് സഹായം തേടും യുട്യൂബിലിപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് യൂട്യൂബില് കിട്ടുന്ന കാരണം വളരെ എളുപ്പത്തില് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാനും അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അല്ലാന്ന് ഉണ്ടെങ്കിൽ നമ്മള് വീട്ടില് വീട്ടില് ഉള്ളവരുടെടുത്ത് അമ്മമാരുടടുത്തോ ഇപ്പം ചോദിച്ച് അവരെ പിന്തുടർന്ന് പോകുന്ന രീതിയില് തന്നെ നമ്മള് പാചകം ചെയ്ത് അങ്ങനെ ചെയ്യും ഞാൻ കൂടുതലും പാച പാചകം ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ കൂടുതലും അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചാണ് ചെയ്യാറ് ഇന്നേ വരെ അങ്ങനെ മോശായിട്ടൊന്നും വന്നിട്ടുമില്ല യൂ ട്യൂബിൽ നോക്കി ചെയ്യാറും ഉണ്ട് എന്നാലും കൂടുതൽ അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ച് നമ്മള് അങ്ങനെയാണ് കൂടുതലും ചെയ്യാറ്